അല്ല വായനക്കാരുടെ ഓൺലൈൻ കൂട്ടായ്മയിലൊന്നും അംഗമില്ല കാരണം എനിക്ക് അങ്ങനെ കോ ഓൺലൈൻ കൂട്ടായ്മയിൽ ചേർന്നിരുന്നുകൊണ്ട് വായിക്കുന്നതിൽ താല്പര്യമില്ല പിന്നെ ഫ്രീ എനിക്ക് ഞാൻ എപ്പോൾ ഫ്രീ ആവുന്നോ ആ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് വായിക്കണമെന്ന് തോന്നുമ്പോൾ വായിക്കുന്നു എന്നല്ലാതെ ഓൺലൈൻ കൂട്ടായ്മ ഓൺലൈൻ കൂട്ടായ്മയിൽ അംഗമായി വായിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ ക്കടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം ഇന്ന പുസ്തകമെന്നോ ഇന്ന നോവൽ എന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തെ കുറിച്ച് വായിക്കണമെന്നോ അങ്ങനെ ഒന്നും നോക്കി അല്ല ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒന്നും വേറൊന്നും മറ്റുള്ളതൊന്നും വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ തന്നെ ബൈബിൾ തന്നെ വായിക്കാനാണ് കൂടുതലും ശ്രമിക്കാറ് അപ്പോൾ അത് നമുക്ക് വായന ഒരു കൂട്ടായ്മയിൽ അംഗമായി ഇരിക്കുന്നത് വഴി എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഒരു കൂട്ടായ്മയിൽ ഓൺലൈൻ അംഗമായി ഇരുന്നുകൊണ്ട് വായിക്കുക അല്ലെങ്കിൽ അതിനോട് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല പിന്നെ അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ പിന്നെ അതിനായിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ വായന വായിക്കുന്നതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ബുക്കുകൾ വായിക്കുന്നു എന്ന് മാത്രം ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള ജോലികളിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ ചുമ്മാ ഇരിക്കട്ടെ വായിക്കാം എന്നുള്ള രീതിയിൽ വായിക്കുന്നു എന്ന് മാത്രം